നമ്മുടെ വയനാട്ടിൽ ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ നിന്നും ഏറെ കുറെ വികസനം ഉണ്ടായിട്ടുണ്ട് അതിന് പ്രധാന പങ്ക് വഹിക്കുന്നത് വിനോദസഞ്ചാരമുണ്ട് പിന്നെ ഹോം സ്റ്റേജിൻ്റെ റിസോർട്ടുണ്ട് അതുപോലെ പല സ്ഥാപനങ്ങളും നമ്മുടെ ഉയർന്ന് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ കൃഷിനെ പറ്റി പറയുകയാണെങ്കിൽ കാപ്പി കുരുമുളക് ഇഞ്ചി അതേ പോലെ തേയില ഇതിൽ നിന്ന് നല്ലൊരു വരുമാനമാണ് കിട്ടുന്നത് അതുപോലെ ഇന്നത്തെ കാലത്ത് കാലഘട്ടത്തിലെ കൃഷി കൊണ്ട് നെൽകൃഷി ചെയ്യുന്നതിൽ യാതൊരു പ്രയോജനോം കാണുന്നില്ല കാരണം എന്താച്ചാൽ ഒരുപാട് ആൾക്കാരിപ്പം വാഴയിലേക്കാണ് പോകുന്നത് വാഴക്ക് ചില സമയത്ത് വില കിട്ടും ചില സമയത്ത് വില കുറഞ്ഞു വരും അതേപോലെ ഇഞ്ചിൻ്റെ കാര്യവും അങ്ങനെ തന്നെ ചില കൊല്ലങ്ങളിൽ ഇഞ്ചിക്ക് തീരെ വില ഉണ്ടാവൂല്ല ചില കൊല്ലങ്ങളിൽ ഇഞ്ചിക്ക് നല്ല വരുമാനം കിട്ടും പിന്നെ പറയാണേൽ നമുക്ക് മത്സ്യബന്ധനമുണ്ട് അതേപോലെ കോഴി കാട താ അതേപോലെ കാ പിന്നെ അതുപോലുള്ള പ്ര കൃഷികളെ നമ്മുടെ വയനാട്ടിൽ തുടങ്ങീട്ടുണ്ട് അതുംകൊണ്ടൊക്കെ നമുക്ക് നല്ലൊരു നേട്ടമാണ് ഉണ്ടാകുന്നത് പിന്നെ കൂടുതലും നമുക്ക് പറയാണെങ്കിൽ മൃഗങ്ങളിൽ നിന്നും നമുക്ക് നല്ലൊരു വരുമാനം കിട്ടുന്നുണ്ട് മൃഗങ്ങളെ ഫസ്റ്റ് പശൂനെ നോക്കുവാണെങ്കിൽ അതേപോലെ പോത്തുകളെ വളർത്തുവാണെങ്കിലും അതിൽ നിന്നൊക്കെ നമുക്ക് ഒരുപാട് വരുമാനം ലഭിക്കുന്ന ഒരു ഇനമാണ് അതുപോലെ കോഴി ഫാമ് അതിന്നൊക്കെ നമുക്ക് നല്ലൊരു വരുമാനം കിട്ടുന്നുണ്ട് ഇതൊക്കെ ഇതൊക്കെത്തന്നെയാണ് കൂടുതലും വയനാട്ടിൽ ഈ കഴിഞ്ഞ കാലഘട്ടത്തിലെ എന്ന് നമുക്ക് വ്യത്യസ്തമായ വികസനത്തിന് കാരണോം